ഹലോ രമേഷ് സാറല്ലേ ഞാനിവിടെ കിടങ്ങറയില്നിന്ന് എലിസബത്താണേ കേൾക്കാമോ ഓക്കെ സാർ അപ്പോള് എൻറ്റേ പീയെഫൊന്ന് ട്രാൻസ്ഫറെയണമായിരുന്നു അതപ്പോള് എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഞാൻ ഇ പി എഫ് പോർട്ടലിൽ ലോഗിൻ ചെയ്തായിരുന്നു പക്ഷെ എനിക്കങ്ങോട്ട് കയറാന് പറ്റുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് വിചാരിച്ച് ഞാൻ കുറേനേരം ട്രൈ ചെയ്തു ബട്ട് എനിക്കത് കയറാന് പറ്റുന്നില്ലായിരുന്നു ഓക്കെ സാർ ഓക്കെ സാർ അപ്പോള് സാറിതൊന്ന് ലോഗിൻ ചെയ്ത് എനിക്കിതൊന്ന് ചെയ്തു തരാമോ ഓക്കെ ഓക്കെ അപ്പോള് ഞാനെന്തുവാണ് പറഞ്ഞുതരണ്ടെ ഓ യൂ ഏ നമ്പര് ഓക്കെ സാർ പിന്നെ ഓക്കെ ഓക്കെ റഫറൻസ് നമ്പറും അ ഓക്കെ സാർ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാല് മതിയോ ഒക്കെ കോള് കട്ടെയ്യല്ലെ സാർ യു എ എൻ നമ്പര് ഏ ബീ സി

ഓക്കെ സോറി സാർ അത് ഇച്ചിരി നെറ്റ്വർക്ക് പ്രശ്നമായിരുന്നെ യൂ എൻ നമ്പര് ഏ ബീ സി ഇ ട്രാൻസ്ഫർ അഭ്യർത്ഥനാ നമ്പര് നയൻ സിക്സ് ഫോർ സെവൻ സീറോ ഫൈവ് അപ്പോള് സാറെ ഇത് ഞാൻ ചെയ്യണോ അപ്പോള് സാർ എനിക്ക് ചെയ്ത് തരുമോ ഓക്കെ സാർ സാറിന് ഇപ്പോഴത് കയറാന് പറ്റുന്നുണ്ടോ ലോഗിൻ ചെയ്യാമ്പറ്റുന്നുണ്ടോ ഓക്കെ ഓക്കെ അപ്പോള് സാറതില് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓ റ്റീ പി ഓ അപ്പോള് എനിക്ക് ഓ റ്റീ പി വരുമല്ലെ ഓക്കെ സാർ എനിക്ക് തോന്നിയായിരുന്നു ഞാനത് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഇങ്ങനെ തടസം കാണിച്ചതുകൊണ്ടായിരുന്നു ഓക്കെ സാർ ഓ റ്റീ പി നമ്പര് വന്നിട്ടില്ല സാർ ഓക്കെ വന്നുകഴിയുമ്പോള് ഞാൻ വിളിക്കാം ഓക്കെ സാർ താങ്ക് യു